ഞാനെൻ്റെ പണം സൂക്ഷിക്കുന്നത് എന്ന് പറയുന്നത് സ്ഥിരനിക്ഷേപം തന്നെയാണ് പിന്നെ നമുക്കെല്ലാവർക്കും ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മുടെ ഇപ്പം കൈയിൽ ആവശ്യമായ പൈസ കൈയിൽ വെച്ച് ബാക്കി എന്തെങ്കിലും ഒരു സേവിങ്സ് ആയിട്ട് ഞാൻ ബാങ്കിൽ നിക്ഷേപിക്കാറുണ്ട് സ്ഥിര നിക്ഷേപം ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നല്ല സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഞാൻ ഉ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പാട് ക്യാഷ് നമ്മുടെ കൈയിലുണ്ടാകണമല്ലോ അത്രയൊന്നും ക്യാഷ് ഇല്ല അപ്പം അതുകൊണ്ടും പിന്നെ മ്യൂച്ചൽ ഫണ്ട് അ അത് അങ്ങനെയൊന്നുമില്ല പിന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലിട്ടിട്ട് പണം സൂക്ഷിക്കാറുണ്ട് പിന്നെ ഇപ്പം നമ്മുടെ ഇപ്പോൾ നമ്മുടെ കൈയിൽ വെച്ചാൽ ഇപ്പം പെട്ടെന്ന് തന്നെ ഒരു ദിവസം കണ്ടില്ലേ രണ്ടായിരം രൂപയും അഞ്ഞൂറ് രൂപയൊക്കെ പിന്നെ പിൻ വലിച്ചിട്ട് നിരോധിച്ചിട്ട് പിൻ അല്ല ആയിരം രൂപയൊക്കെ നിരോധിച്ച് രണ്ടായിരം രൂപയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ ആ സമയത്തൊക്കെ നമ്മുടെ കൈയിലായിരുന്നെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിയേനെ അപ്പം ബാങ്കിലൊക്കെ നിക്ഷേപിക്കുന്നത് കൊണ്ട് അത് അത്തരം ഒരു സന്ദർഭത്തിൽ നമുക്കൊരു പ്രയോജനകരമായ ഒരു സന്ദർഭം തന്നെയാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഒരു വിധപ്പെട്ട എല്ലാവരും സേവിങ്സ് ബേങ്ക് അക്കൗണ്ട് താന്നെയാണുപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ക്യാഷ് ഒരു പിന്നെ ലക്ഷങ്ങളൊക്കെ കയ്യിലുണ്ടാകുമ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെയാണ് പരിഗണിക്കുന്നത്